ഈ ക്യാമറ ഉപയോഗിച്ച് ഒരുപാട് ഫോട്ടോസ് എടുക്കാറുണ്ട് അത് നാച്ചുറൽ ആയിട്ട് ഉള്ള ഫോട്ടോഗ്രഫി എടുക്കാറുണ്ട് സ്ട്രീറ്റ് ഫോട്ടോഗ്രഫിയും ഞാൻ ശ്രദ്ധ ചെലുത്താറുണ്ട് അതൊക്കെ നമ്മൾ കാലാവസ്ഥക്ക് അനുസരിച്ചിട്ട് ഫോട്ടോ എടുക്കും ഫോട്ടോ നല്ല ഫോട്ടോസൊക്കെ എനിക്ക് ക്ലിക്ക് ചെയ്യാൻ പറ്റാറുണ്ട് അതേപോലെ ഒന്നും ഞാൻ മിസ് ആക്കാറില്ല കണ്ണിൽ കാണുന്നതൊക്കെ ഞാൻ ചിത്രത്തിലോട്ട് പകർത്താൻ ശ്രമിക്കാറുണ്ട് അധികവും ക്യാമറ ഉപയോഗിച്ചിട്ട് അപ്പോൾ നമുക്ക് നല്ല നല്ല പിക്ചർസ് ഒക്കെ കിട്ടാറുണ്ട് അതേപോലെ റീൽസ് എടുക്കുകയാണെങ്കിലുള്ള ബുദ്ധിമുട്ടെന്ന് പറയുന്നത് റീൽസും ഷൂട്ട് ചെയ്യാറുണ്ട് എന്ന് പറഞ്ഞാൽ ക്യാമറ നമുക്ക് ഒരുപാട് നേരം അത്രയും ലെങ്ങ്ത്തി ആയത് കൊണ്ട് തന്നെ നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള എഡിറ്റിങ്ങും കാര്യങ്ങളും മറ്റുമൊക്കെ വരുന്നുണ്ട് റീൽസൊക്കെ ആണെങ്കിൽ മറ്റേത് ഫോട്ടോ ഒക്കെ ആണെങ്കിൽ നമുക്ക് ക്ലൈമറ്റ് അതിനനുസരിച്ച് കിട്ടിയാൽ നമുക്ക് ക്ലിക്ക് ചെയ്ത് പോകേണ്ടതുള്ളൂ അധികം നമുക്ക് എഡിറ്റിങ്ങും കാര്യങ്ങളൊന്നും വരുന്നില്ല റീൽസ് അല്ലെങ്കിൽ വേറെ ഷോർട് ഫിലിം ഒക്കെ ഇതാക്കുമ്പോൾ നമുക്ക് അതിൻറ്റേതായ പോരായ്മകൾ വരുന്നത് ഒന്നാമത് കാലാവസ്ഥയും കാര്യങ്ങളും അതിൻറ്റേതായ എഡിറ്റിങ്ങ് സൗകര്യങ്ങളും അതിലൊക്കെയാണ് നമുക്ക് ചെറിയൊരു പോരായ്മകൾ വരുന്നത് അതേപോലെ ഷോർട് ഫിലിം ആണെങ്കിൽ അതിനുള്ള അഭിനയിക്കാൻ പറ്റിയ ആൾക്കാർ കിട്ടാൻ കിട്ടേണ്ടതുണ്ട് അതേപോലെ അതിന് വേണ്ടിയിട്ടുള്ള കഥകൾ കിട്ടേണ്ടതുണ്ട് അത് നമുക്ക് ഫോട്ടോ എടുക്കുകയാണെങ്കിൽ അതിൻറ്റെയൊന്നും ആവശ്യമില്ല നമുക്ക് നല്ല രീതിയിൽ ഫോട്ടോ എടുക്കാം അറിയുമെങ്കിൽ നമുക്ക് ക്ലിക്ക് ചെയ്ത് ക്ലിക്ക് ചെയ്ത് പോകേണ്ടതുള്ളൂ നമുക്ക് അതിൽ നല്ല നല്ല ചിത്രങ്ങളൊക്കെ പകർത്താൻ പറ്റും